പണ്ടുകാലത്ത് നമ്മൾ ഫോട്ടോകളെടുക്കാറുണ്ടായിരുന്നു എല്ലാവരൊന്നുമില്ല ആരെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ ഫോട്ടോകൾ എടുക്കാറുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഇന്ന് നമുക്ക് ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കാനുള്ള സാഹചര്യങ്ങളും അതിന്റെ സംവിധാനങ്ങളുമുണ്ട് എന്നാൽ പണ്ടു കാലത്ത് അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അന്നെടുത്ത ഫോട്ടോകൾ നമുക്ക് ഇന്നും വിലപ്പെട്ടതാണ് ഇന്നെടുക്കുന്നതിനേക്കാൾ നമ്മൾ അന്നത്തെ ഫോട്ടോകൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് കാരണം അന്നു നമ്മൾ എടുക്കുന്ന ഫോട്ടോകൾ വളരെ നമുക്ക് വിലപ്പെട്ടതായിരുന്നു അന്ന് ആ ഒരു സാഹചര്യത്തിൽ എടുക്കുന്നതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ ഫോട്ടോകൾ മാത്രമേ എല്ലാവരുടെയും കയ്യിലുണ്ടായിരുന്നുള്ളൂ അതും ബ്ലാക്ക് ആൻറ് വൈറ്റ് നിറത്തിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫോണിലുള്ള ക്യാമറ ഉപയോഗിച്ച് നമുക്ക് എത്ര സെൽഫികളും നല്ല ഫോട്ടോസും മറ്റും എടുക്കാൻ പറ്റും അതേപോലെ ക്യാമറ